ആ ഹലോ ആണല്ലോ നിങ്ങളാരാണ് സംസാരിക്കുന്നത് നിങ്ങളിപ്പം ബസ്സിലുണ്ടോ ആ ഹാ ഓക്കെ എന്റെ നമ്പറെങ്ങനെ കിട്ടി ഓ ഹാ ഓക്കെ ഓക്കെ ആ ആ പറഞ്ഞോളൂ മേം ഓക്കെ മേം മേം മേം ഇത് മേം മേം ഒരു ലോക്കൽ ബസ്സിലാണോ കയറിയിരിക്കുന്നത് അതോ ഒരു സൂപ്പർ ഫാസ്റ്റിലാണോ കയറിയിരിക്കുന്നത് ഫാസ്റ്റിലാണ് ഓക്കെ ഓക്കെ മ് മ് ഓക്കെ ഇങ്ങോട്ട് നോ ഒരു ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടേ മേം ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സ് ഈ തിരുവനന്തപുരത്തു നിന്നെടുത്ത ബസ്സാണ് തിരുവനന്തപുരത്തു നിന്ന് കോഴിക്കോട് പോകുന്ന ബസ്സാണ് അപ്പം ഇതിനൊരു പ്രിസ്ക്രൈബ്ഡ് ടൈമുണ്ട സമയമുണ്ടവിടെത്തിച്ചേരാനായിട്ട് ഈ ബസ് ഞാൻ ഏ ഒരു ലോക്കൽ ബസ്സോടിക്കുന്ന രീതിയിൽ ഞാനോടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടി എന്റെ നെഞ്ചത്ത് പൊങ്കാലയിടാൻ വരത്തില്ലേ ഇയാളെവിടുത്തെ ഡ്രൈവറാടെ ഇയാൾക്ക് എങ്ങനാടെ ഇയാൾക്ക് ആരാടേ ലൈസൻസ്സ് തന്നത് ഇയാളെന്തുവാടേ ഈ കാണിക്കുന്നത് ഇയാൾ ഇയാ നിങ്ങൾ നിങ്ങൾ നിങ്ങൾ ആ

ഞാൻ ഞാൻ ആ ഞങ്ങൾക്ക് ബ്രേക്ക് ഞ ആഹാ ഞങ്ങൾക്ക് ബ്രേക്ക് ഫാസ്റ്റ് ഞങ്ങൾക്ക് ആ നിങ്ങൾ വ് നിങ്ങൾ വാരി വി നിങ്ങൾ നിങ്ങൾ വാരി വിഴുങ്ങിക്കഴി നിങ്ങൾ വാരി വിഴുങ്ങി ക്കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വാരിവിഴുങ്ങിക്കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് പ് ടൈമുണ്ട് ഞങ്ങൾക്ക് കൃത്യ സമയമുണ്ട് ഞങ്ങളാ കൃത്യ സമയത്തിനെടുക്കും കൃത്യസമയത്ത് എത്തേണ്ടുന്ന സ്ഥലത്ത് ഞങ്ങളെത്തിച്ചേരുകയും ചെയ്യും ഏ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽക്കയറി ലോക്കൽ ബസ്സോടിക്കുന്നതു പോലെ ഓടിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മണ്ടയിൽക്കയറി പൊങ്കാലയിടാൻ വരുന്നത് ഏ ഒരു മേം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഏ നിങ്ങൾക്ക് ഓ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വേറെ വണ്ടിയിൽക്കയറിപ്പോടേ ഞങ്ങൾ പറഞ്ഞോ ഞങ്ങളുടെ വണ്ടിയിൽക്കറണമെന്ന് ഏ ഞ ഇനി നിങ്ങൾ ഏ ഞങ്ങൾ ഏ ഞങ് ആ ഞങ്ങളേ ഏ ഈ ഒരു തി ഒരു തി തിരുവനന്തപുരത്തെ മേ ഒരു തിരരുവനന്തപുരത്തെ മേയർ കയറി കാണിച്ചാൽ പരിപാടിയറിയാമല്ലോ ഇപ്പം ആരാണ് കിടന്നു വെള്ളം കുടിക്കുന്നത് ഏ ഉം ഏ ഏ ഒരാൾ പറയും ഒരാൾ പറയും വണ്ടി ഒച്ച് ഇയാളെന്തുവാ യെ ഏ ഒരാൾ പറയും ഇയാൾ എന്തുവാഡേയീ കാണിക്കുന്നത് വളരെ വേഗത്തിൽപ്പോകുന്നോ അടുത്തയാൾ പറയും ഇയാളെന്തുവാടേ ഇത്രയും സ്പീഡേ വണ്ടിക്കുള്ളോ അപ്പം ഞങ്ങളെ എന്തു ചെയ്യണമെന്നു പറയൂ നിങ്ങൾ ഏ ഒരാൾ പറയും വേഗത്തിലോടിക്കാൻ ഏ ഞങ്ങൾ നിയമമനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമത്തിനപ്പുറം ഞങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ല ഏ സൂപ്പർ ഫാസ്റ്റ് അതേ നിങ്ങൾ നിങ് നിങ്ങളാദ്യമായിട്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽക്കയറുന്നതു കൊണ്ട് തോന്നുന്നത് ആയിരിക്കാം ബസ്സിന്റെ സ്പീഡ് കണ്ടിട്ട് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽക്കയറുന്നത് അതുകൊണ്ടാണിതിന് ഭയങ്കര സ്പീഡെന്നു പറയുന്നത് കേട്ടോ ഏ ആദ്യമായിട്ട് കയറുന്നതു കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അല്ല ആദ് ആ അത് അത് ആദ്യമായിട്ട് കയറുന്നതു കൊണ്ടാണ് നിങ്ങൾക്കു തോന്നുന്നത് നിങ്ങളെവിടെയോ കമ്പ്ലൈൻറ്റിട് ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കെന്താണ് ഏ ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്നതു കൊണ്ട് നിങ്ങളിനി ആ ഓക്കെ എന്തോ ഇത് ഇന്നൊന്നുമല്ല തുടങ്ങിയത് ഏ

ആ ഓക്കെ എന്തായാലും ആ ഓക്കെ ആ ഓക്കെ എന്തായാലും ഞാനിനി മിനിമം സ്പീഡിൽ ഓടിക്കാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ നിങ്ങൾ കമ്പ്ലൈൻ്റ് ചെയ്യൂ എന്തോ ചെയ്താലും മന്ത്രി ഞങ്ങളുടെയാളാണ് പിന്നെ ഓ